എനിക്ക് വളർത്തുമൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ട്ടമുള്ള മൃഗമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നായയാണ് അതെന്താണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് പെട്ടെന്നുതന്നെ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേരുന്നതും നല്ല അനുസരണശീലവും അത് അതിൻ്റെ ഉടമസ്ഥനോട് ഏറ്റവും കൂറു പുലർത്തുന്നൊരു വളർത്തു മൃഗമാണ് നായ പിന്നെ വേറെ പല ഉപകാരമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉടമസ്ഥനു എന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ അത് പെട്ടെന്നുതന്നെ മുന്നറിയിപ്പ് നൽകുന്ന അങ്ങനത്തെ പല ഉപകാരങ്ങളും ഉണ്ട് ഈ നായേനെ കൊണ്ട് ഇപ്പൊൾ എക്സാംപിൾ പറയാണെങ്കില് ഇപ്പോരു നമ്മളൊരു വീട്ടിലേക്ക് കള്ളന്മാരോ മറ്റോ അങ്ങനെ അപരിചിതനായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പെട്ടെന്ന് അത് കുരച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി നമ്മളെ അറിയിക്കും അങ്ങനെ പല ഉപകാരങ്ങളുമുണ്ട് പിന്നെ ഇത് പെട്ടെന്നിണങ്ങും നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ഒരു യജമാനൻ സ്നേഹം കാണിക്കുന്നൊരു മൃഗാണ് നായ പിന്നെ ഇതിനു ചില സമയങ്ങളിൽ ഇഷ്ട്ടപ്പെടാത്തൊരു കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കൊരു ഉപദ്രവകാരികൂടെയാണ് ചിലപ്പോൾ അതിനു ദേഷ്യം പിടിച്ച് നമ്മളെ കടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം